അച്ചടി ഭാഷ ഉപ ഉപയോഗിക്കുന്നത് തി തിരുവനന്തപുരം മുതൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോഡ് വരെ പല രീതിയിലും പല സ്ലാങ്ങിലുമാണ് ആൾക്കാർ സംസാരിക്കുന്നത് പക്ഷെ അച്ചടി ഭാഷയിൽ മാറ്റങ്ങളില്ല റേഡിയോയിൽക്കൂടി വരുന്ന വാർത്തയും ടെലിവിഷനിൽക്കൂടി വരുന്ന വാർത്തയും സം സിനിമകളും എല്ലാം പിന്നെ അച്ചടി ഭാഷ് മാറ്റങ്ങളില്ല അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾക്ക് ചിലപ്പോൾ തിരുവനന്തപുരംകാർക്ക് കൊല്ലംകാർക്കും ഒക്കെ ചിലപ്പോൾ പിന്നെ എറണാകുളത്ത് ചില ഭാഷകൾ മനസ്സിലാകില്ല തൃശ്ശൂരിലെ ഭാഷകളും മനസ്സിലാകത്തില്ല മാ പിന്നെ മലപ്പുറത്തെ ഭാഷകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അച്ചടി ഭാഷയിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അച്ചടി ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് മലയാള ഭാഷ ക്രമീകരിച്ചിരിക്കുന്നത്